തോട്ടകൃഷി തുടങ്ങാൻ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും പച്ചക്കറി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ തോട്ടകൃഷി കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പോഷകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പച്ചക്കറി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാം അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിക്ക് ദിനംതോറും ഉള്ള വിലവർധനവ് ഇപ്പം പച്ചക്കറിയാണെങ്കിൽ കിട്ടാനും ഇല്ല പിന്നെ പുറത്ത് നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി ഫുള്ള് വിഷം ആണ് ഫുള്ള് പിന്നെ പച്ചക്കറിക്ക് ഇപ്പം തക്കാളിക്ക് തന്നെ കൂടു ഭയങ്കര വിലയാണ് കൂടിയിട്ടുള്ളത് കാരണം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ കിലോയ്ക്ക് വരുന്നുണ്ട് അപ്പം നമ്മള് നമ്മുടെ വീട്ടില് വയ്ക്കുന്ന ഒരു തക്കാളിൻ്റെ ഒരു ഗുണമേന്മയോ കാര്യങ്ങളോ ഒന്നും പുറമേ നിന്ന് വരുന്നതിനു ഉണ്ടാകില്ല അപ്പം പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ